കോഴിക്കോട് റസ്റ്റോറൻറ്റിലെ കുക്ക് ആണോ ആ നമ്മൾ ഇവിടെ പിന്നെ കോയമ്പത്തൂരിൽ നിന്ന് വിളിക്കുന്നത് ആണേ അപ്പം നമുക്ക് അവിടെ നമ്മൾ അവിടെ കുറച്ച് ദിവസം സ്റ്റേ ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട് അപ്പം അവിടെ അവിടുത്തെ ഫേമസ് ചിക്കൻ സ്റ്റൂവും അപ്പവും അതായത് ഇപ്പോഴും അവൈലബിൾ ആയ ഏതൊക്കെ ടൈമിലാണ് അവൈലബിൾ എന്ന് അറിയാൻ വേണ്ടി ആയിരുന്നു

ആ ആ ഓക്കെ പിന്നെ അവിടെ വേറെ എന്തൊക്കെയാണ് സ്പെഷ്യൽ ആയിട്ട് ഉള്ളത്

അങ്ങനെ ഒക്കെ ഉണ്ടല്ലേ അപ്പം ആ ഉച്ചയ്ക്ക് ഉള്ള അതായത് ലഞ്ചിന് എന്തൊക്കെയാണ് അവിടെ സ്പെഷ്യൽ ആയിട്ട് ഉള്ളത് ആ സീഫുഡ്ഡ് ഒക്കെ ഉണ്ടോ അവിടെ ഉണ്ടല്ലേ ആ ഓക്കെ എത്ര മണി വരെയാണ് അവിടെ ഓപ്പൺ ഓപ്പൺ ടൈമും ക്ലോസ് ടൈമും ആണല്ലേ ആ ഓക്കെ ആ അപ്പം നമ്മൾ അങ്ങോട്ട് വരുമ്പോൾ അവിടുത്തെ സ്പെഷ്യൽ അതായത് നിങ്ങള ഫുഡ്ഡ് ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ആണ് മെയിൻ ആയിട്ട് വരുന്നത് അപ്പം കോഴിക്കോടിൽ നമുക്ക് ഒരുപാട് പിന്നെന്ത് ഓരോ സ്പോട്ടുകൾ ഉണ്ടല്ലോ അപ്പം ജസ്റ്റ് ഒന്ന് വിളിച്ച് ചോദിച്ചതാണ് ഏതൊക്കെ ടൈം ഉണ്ടാവുമെന്ന് അറിയാൻ വേണ്ടി ആണല്ലേ ആ എന്നാൽ നമുക്ക് ഓക്കെ അങ്ങനെ ആണെങ്കിൽ ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം ആ ഓക്കേ